ഇപ്പോൾ എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നാലു പേരാണ് ഞാൻ എൻ്റച്ഛൻ അമ്മ പിന്നെ എൻ്റെ അനിയത്തി ഇത്രയും പേരാണിപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളത് പിന്നെ എനിക്ക് വൈഫുണ്ട് വൈഫ് പുറത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ ഇത്രയും പേരടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബം പിന്നെൻ്റെ സുഹൃത്തുക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കുറേപ്പേരുണ്ട് പിന്നെ എൻ്റച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു അമ്മ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുമായിരുന്നു അനിയത്തി ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടേയുള്ളൂ പിന്നെ വൈഫ് പുറത്തു നേഴ്സിംഗിന് ഫീൽഡിൽ ആണുള്ളത് പിന്നെ എൻ്റെ സുഹൃത്തുക്കളെന്നൊക്കെ പറയുമ്പോൾ കൂടുതലും പമ്പിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് കൂടുതലുള്ളത് പിന്നെ കുറേപ്പേരു ടൈലിൻ്റെ വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കൂടുതലും ആൾക്കാരിപ്പോൾ ഫ്രണ്ട്സൊക്കെ പുറത്തേക്കൊക്കെ പോയി അവരും പുറത്ത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനങ്ങനെയാണ് എൻ്റെ കുടുംബവും സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അവർ എല്ലാവരും ഓൾമോസ്റ്റ് വർക്കിങ് ഒക്കെ കഴിഞ്ഞു അച്ഛനൊക്കെ ഇപ്പോൾ വീട്ടിൽത്തന്നെയാണ് പുറത്തൊന്നും പോകുന്നില്ല വർക്കൊന്നും ചെയ്യുന്നില്ല